ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പല രീതിയിലുള്ള തൊഴിൽ മേഖലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ജില്ലയാണ് അപ്പോൾ നമുക്ക് ഏതുതരത്തിലുള്ള തൊഴിലും നമുക്കിവിടെ ലഭ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പോൾ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്കിവിടെ വയലും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും നമുക്ക് പല രീതിയിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജില്ലയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാം നല്ല രീതിയിലുള്ള വലിയൊരു ജില്ലയായത് കൊണ്ട് നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായവും കാര്യങ്ങളൊക്കെയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പറ്റും ഇപ്പോൾ തുണി വ്യവസായം അങ്ങനെ പല രീതിയിലുള്ള വ്യവസായവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയുണ്ട് ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ പോലും ടാങ്കില്ലാത്ത ഒരു വീടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ടാങ്ക് നമുക്ക് എപ്പോഴും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്തു വയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ടാപ്പുകളിലൂടെ നമുക്ക് വെള്ളം കിട്ടാൻ വേണ്ടീട്ടൊക്കെ ഒക്കെ ടാങ്ക് നമ്മൾക്ക് എപ്പോഴും ആവശ്യമാണ് അപ്പോൾ ടാങ്ക് ടാങ്കിന്റെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ ഓഡിയോയും വീഡിയോയും എടുക്കില്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഉപകരണങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ റെന്റിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപകരണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നൊരു ജില്ലയാണ് കോഴിക്കോടെന്ന് പറയാം